ഞങ്ങൾ ഇങ്ങനെ കുറേ നേരമായിട്ട് ക്യാബിന് പോവാൻ വേണ്ടി വണ്ടിക്കായിട്ട് കാത്ത് നിൽക്കുകയാണ് പക്ഷേ നിങ്ങൾ വരുന്നില്ലല്ലോ വരാത്തതുകൊണ്ട് നമ്മളിപ്പം എന്താണ് ചെയ്യുക നമുക്ക് എന്തായാലും ട്രിപ്പിന് നല്ലവണ്ണം ലേറ്റ് ആവുന്നുണ്ട് ഇപ്പം തന്നെ അപ്പം പിന്നെ എന്തായാലും ഞങ്ങൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനാണ് റദ്ദാക്കാനാണ് വിളിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഏജൻസി എന്താണെന്ന് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കാരണം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തൊരു ട്രിപ്പ് ആയിരുന്നു ഇത് പക്ഷേ നിങ്ങൾ ഇത്ര നേരമായിട്ടും പറഞ്ഞ സമയത്ത് എത്തുന്നില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണമെന്ന് തന്നെയാണ് ഇത് പറയുന്നത് ഞങ്ങളിപ്പം ഫാമിലി ആയിട്ട് നേരത്തെ പറഞ്ഞു വെച്ചൊരു ട്രിപ്പ് ആണ് ഞങ്ങൾ ഇതിനു മുന്നേ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അപ്പം തന്നെ ഞങ്ങൾക്ക് ഇത് ഇത്ര വലിയ പ്രശ്നമായിട്ടില്ല പക്ഷേ ഇത് ഞങ്ങൾ വളരെ മുന്നേ തന്നെ പ്ലാൻ ചെയ്തു ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷകളോടെ നിൽക്കുന്നൊരു ട്രിപ്പ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വരുമെന്ന് അത്രയും നമുക്ക് കൺഫേം ആയിട്ട് പറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ നിങ്ങൾ ഇപ്പം ഇത്രേം ലേറ്റ് ആയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തായാലും ഇനി ട്രിപ്പ് പോയാലും ഞങ്ങൾ പോകുന്നൊരു സ്ഥലത്ത് കറക്റ്റ് ടൈമിൽ എത്തി ഞങ്ങളുടെ പ്ലാൻസിനനുസരിച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എന്തായാലും ഈ ട്രിപ്പ് എനിക്ക് ക്യാൻസൽ ചെയ്യണം എൻ്റെ ഫാമിലിക്കായാലും ആ ഒരു ഞങ്ങൾ ഒരു ഫൺ ആയിട്ടുള്ള ഒരു സന്തോഷത്തോടെയുള്ള സിറ്റുവേഷനിലായിട്ട് നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയി ഒരുമണിക്കൂർ ആയിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ വരണമെന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ഒരു അസൗകര്യമായിട്ടുണ്ട് ഞങ്ങളുടെ ഫീഡ്ബാക്കും ഇതു തന്നെയാണ് ഞങ്ങൾക്ക് ഒട്ടും ഞങ്ങൾ ഇങ്ങനെ സം സന്ദർഭം പ്രതീക്ഷിച്ചതല്ല നിങ്ങൾ കറക്റ്റ് ടൈമിൽ വരും ഞാനത് അത്രയും ഉറപ്പായിട്ടും വാക്ക് പറഞ്ഞതായിരുന്നു പക്ഷേ എന്താണ് ഇപ്പം ചെയ്യുക നിങ്ങൾ വരാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ട്രിപ്പ് ക്യാൻസൽ ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു എറർ വരാതെ ശ്രദ്ധിക്കുക ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്കിനി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്ന് താൽപര്യമില്ല ഇനി ഇങ്ങനെ ഒരു മിസ്റ്റേക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാതെ ശ്രദ്ധിക്കുക ഞങ്ങൾ ഞങ്ങൾക്കിത് ഭയങ്കര ഇൻകൺവീനിയെൻസ് ആയിട്ട് തന്നെ ഉണ്ട്